ജീവിതത്തിൽ നമുക്ക് സോറി നമുക്ക് കുറെ ആപ്പുകളായിട്ട് ഉപകാരപ്രദമായ ആപ്പുകൾ ഉണ്ട് ഇ മെയിനായിട്ട് പറയാണെങ്കിൽ ഒരു നോട്ട്സ് ആപ്പ് എപ്പോഴും വെക്കണം നോട്ട്സ് ആപ്പ് ഏതേലൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നച്ചാൽ നമുക്ക് എന്തേലും കാര്യങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് ഒരു ടു ഡൂ ലിസ്റ്റ് പോലെ നമുക്ക് ഇങ്ങനെ ആപ്പുകളെട്ട് ആപ്പുകളിലൂടെ നമുക്ക് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതു മാത്രമല്ല പിന്നെ പിന്നെ ഉള്ളത് പിന്നുള്ള ആപ്പ്ന്ന് വെച്ചാൽ എന്തേലും യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബിലൂടെ ആണെങ്കിൽ നമുക്ക് കുറെ അധികം അറിവ് അറിവ് നേടാനായിട്ട് സാധിക്കും പിന്നെ വീഡിയോസിലൂടെ എൻറ്റർറ്റേൻമൻറ്റായിട്ട് നമുക്ക് യൂറ്റൂബൊക്കെ അങ്ങന യൂസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം അത് പോലെ ഒക്കെ തന്നെയാണ് പിന്നെ പിന്നേന്നൊക്കെ പറയാണെങ്കിൽ ക്രോമിലൂടെ നമുക്ക് കുറെ വെബ്സൈറ്റുകളിലൂടെ ഈ പല തരത്തിലുള്ള ഇൻഫോർമേഷനും നമുക്ക് എന്തേലും ഒക്കെ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാൻ ഉണ്ടേൽ ആമസോണിലക്കെ കയറി നമുക്ക് ആമസോണെന്ന വെബ്സൈറ്റിലൊക്കെ കയറീട്ട് നമുക്ക് എന്തേലും സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാനാണ് അതിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ ആണ് മെയിനായിട്ടുള്ള ആപ്പുകൾ